ഇപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് പറയുക എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് മൊബൈൽ ഫോണായിരുന്നു അപ്പോൾ മൊബൈൽ ഫോണിനെപ്പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മൾ പറയാമല്ലോ ഫസ്റ്റ് ഇപ്പോൾ എന്താണ് പാറയുക പോസിറ്റീവ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ കംഫേർട്ടാവണം അത് തന്നെയാണ് പോസിറ്റീവ് എക്സ്പീരിയൻസായിട്ട് എനിക്ക് പറയാനുള്ളത് അതായത് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വൺ ഇയറിനടുത്താവാറായി അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് ഇതുവരെ എനിക്ക് ഒരു പ്രോബ്ലമായിട്ട് തോന്നിയിട്ടില്ല കാരണം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇതിൽ ചാർജും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അത് തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും നല്ലൊരു ചാർജിങ്ങ് കപ്പാസിറ്റി തന്നെ ഫോൺ ഇപ്പോഴും എനിക്ക് തരുന്നുണ്ട് ആ പിന്നെ ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി ആയിക്കോട്ടെ ബ്രൈറ്റ്നസും എല്ലാം നല്ല രീതിക്ക് തന്നെ ഇപ്പോഴും വർക്കിങ്ങാണ് അപ്പോൾ അതൊരു നല്ല എന്താണ് പറയുക നല്ലൊരു കാര്യം തന്നെയാണ് ഇതിന് അത്യാവശ്യം നല്ല എന്താ പറയുക റീസെയിൽ വാല്യു കാര്യങ്ങളും ഉണ്ട് കാരണം ഇപ്പോൾ നമുക്ക് ഇത് മാറ്റാനുള്ള പ്ലാനില്ല എന്നാലും നമ്മൾക്കിപ്പോൾ ഇത് തിരിച്ച് കൊടുത്താലും അത്യാവശ്യം നല്ല ക്യാഷും കാര്യങ്ങളൊക്കെ എന്താണ് പറയുക റീസെയിൽ വാല്യു ഉള്ളത് കൊണ്ടുതന്നെ കിട്ടുന്നുണ്ട് നമുക്ക് നല്ലൊരു ക്യാഷിന് വർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്